കോഴിക്കോട് ചൈനീസ് റെസ്റ്റോറന്റ് അല്ലേ ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയാണേ ഞങ്ങളിവിടെ പിന്നെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ അവിടെയുള്ള ഒരു ഷോപ്പിലേക്കാണെ ആ അതെ അതെ അതെ സുസുക്കിൻ്റെ ആ ഇവിടത്തേക്കാണ് അപ്പം നമുക്ക് പിന്നെ ചൈനീസ് ഫുഡ് എന്തൊക്കെയാണ് ഉള്ളത് ആ അതൊക്കെ ഉണ്ടല്ലേ അങ്ങനെയാണേ നൂഡിൽസ് ഒരു ഞങ്ങളിവിടെ നാല് പേരാണുള്ളത് നാല് നൂഡിൽസ് പിന്നെ ഫ്രൈഡ് റൈസുണ്ടോ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലേ ഹാ ഹാ ഹാ ഹാ അങ്ങനെയാണെങ്കിൽ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഒരു രണ്ടെണ്ണം മതി പിന്നെ നമുക്ക് ചില്ലി ചിക്കൻ വേണം പിന്നെ ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ട് മതിയേ ആ ഗ്രേവിയായിട്ട് മതി മറ്റേ ഇത് വേണ്ടാ ഡ്രൈ വേണ്ട ആ ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഗീ റൈസ് അങ്ങനെയെന്തെങ്കിലുമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗീ റൈസ് ഒരു രണ്ടെണ്ണം മതി ആ ഓക്കേ എന്നാൽ എന്നാൽ ഞാൻ പിന്നെ ഗു വേണമെങ്കിൽ ഞാൻ പിന്നെ ലൊക്കേഷൻ അയച്ചു തരാം വാട്സപ്പിൽ ആ ഓക്കേ